ഞാൻ താമസിക്കുന്ന പ്രദേശത്ത് മൂന്ന് സ്വകാര്യ ഹോസ്പിറ്റലുകളുണ്ട് ഇവിടെ എത്തിപ്പെടണമെങ്കിൽ ഒരുപാട് പാടാണ് എത്തിപ്പെടണ്ട പാടിനേക്കാൾ അവിടെ ചെന്ന് കഴിഞ്ഞ ഒരുപാട് ഫീസുളവാക്കുന്നു അങ്ങനെയൊരിതുണ്ട് പിന്നെ നമ്മുടെ പിന്നെ സിറ്റി നിന്നും കുറച്ച് ദൂരെ ഉൾ ഉൾമേഖലയിലായതും കൊണ്ട് ടാക്സി വാഹനങ്ങൾ ഒക്കെ കിട്ടി എത്താൻ ഒരുപാട് ബുദ്ധിമുട്ടുണ്ട് അപ്പം സിറ്റിലാണ് ഹോസ്പിറ്റൽ സിറ്റിത്തന്നെ ആയതുംകൊണ്ട് നമ്മൾ ഉൾപ്രദേശത്ത് ഉള്ളവർക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ അങ്ങനേയും അനുഭവപ്പെടുന്നു പിന്നെ ഫീസിന്റെ കാര്യവും അവിടെ ഉണ്ടാവുന്ന അവിടെ വരുന്ന മറ്റുള്ള ചിലവുകളൊക്കെ ഒരുപാടാണ് അതൊക്കെ നമ്മളെ ഒരുപാട് സാധാരണക്കാരായ നമ്മളെപ്പോലുള്ള ജനങ്ങളെ ഒരുപാട് ബാധിക്കുന്നുണ്ട്